നമസ്കാരം ഓട്ടോ ഡ്രൈവർ രമേശ് അല്ലേ ഞാൻ ലതാ ഞാൻ തലശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ വിളിച്ചത് ഒരു ഓട്ടം പോകാൻ വേണ്ടിട്ട് കണ്ണൂർ വരെ ഓട്ടം പോകാൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ വിളിച്ചിരുന്നു നിങ്ങളെ അപ്പം നിങ്ങൾ ആദ്യം ഫോൺ എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരും എന്ന് പറഞ്ഞിട്ട് പിന്നീട് വിളിച്ചപ്പഴൊന്നും നിങ്ങൾ ഫോൺ എടുത്തില്ല അപ്പം എനിക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അവിടെ എത്തണം ഇനി നിങ്ങൾ നിങ്ങളുടെ ഇത്ര നിങ്ങൾക്ക് ഇത്ര മാത്രമേ ഒരു ഉത്തരവാദിത്വം ഉള്ളെങ്കിൽ പിന്നെ നിങ്ങളുടെ ഓട്ടോ വിളിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പം എന്തായാലും ഇവിടെ തയ്യാറായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി നിങ്ങളെ കാത്തിട്ട് ഒരുപാട് സമയം നിന്നു ഒരുപാട് തവണ വിളിച്ചു നോക്കി നിങ്ങൾ ഫോൺ എടുത്തിട്ടില്ല ഒന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല അപ്പം എനിക്ക് എന്തായാലും നിങ്ങളുടെ ഇനി ഓട്ടോ വേണ്ട നിങ്ങൾ തൽക്കാലം എന്താ പറയാ വരണംന്നില്ല ഞാൻ വേറെ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് അവരുമായിട്ട് ഞാൻ പൊക്കോളാം ഇനി ഇങ്ങോട്ടേക്ക് വരണം എന്നില്ല അപ്പം ഇനിയെങ്കിലും വിളിക്കുന്ന ഇങ്ങനെ പോകാൻ വേണ്ടി ആരെങ്കിലും വിളിക്കുമ്പം അവരോട് കുറച്ച് ഒരു നല്ല രീതിയിൽ പെരുമാറി നിങ്ങൾ ശ്രമിക്കണം അത്രയേ എനിക്ക് പറയാനുള്ളൂ ശരി എന്നാൽ